ഹലോ അതെ ആ ആഹ് ഓക്കെ അവിടെ ആ എ എന്തുവാ നിങ്ങൾക്ക് വേണ്ടത് ബീഫ് കറി ബീഫ് കറി ആ ഉണ്ട് ഉണ്ട് ഉണ്ടല്ലോ നല്ല നൈസ് പൊറോട്ട ഉണ്ട് പൊറോട്ട ഇരുപത് രൂപ ഒന്നിന് ആഹ് ഒന്നിന് ഇരുപത് രൂപ നല്ല ഇവിടെ ഒത്തിരി പേര് ഒത്തിരി വിദേശികൾ വരേം വന്ന് കഴിക്കുന്ന ഹോട്ടെലാണ് ആ പൊറോട്ടായും ഉണ്ട് ബീഫ് കറിയൊണ്ട് ബീഫ് കറി ഒരാൾക്കുള്ളത് വേണേൽ തരും അല്ലേ ഒരു ഫേമിലിക്കായിട്ട് വേണേൽ തരും എങ്ങനെ വേണേലും തരും ഒരാൾക്കുള്ളതാണേൽ നൂറ് രൂപ ആ ഒരാൾക്കായിട്ടുള്ളതാണേൽ നൂറ് രൂപ ഒരു ഫേമിലിക്കായിട്ടുള്ളതാണേൽ അഞ്ഞൂറ് രൂപ എങ്ങനെ വേണേലും ഓര്ഡർ ചെയ്യാം പൊറോട്ട പൊറോട്ട ഇഷ്ടം പോലെ ചെയ്യാം എത്ര എണ്ണം വേണമെന്നുള്ളത്

ആ നല്ല നല്ല ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് ആള്ക്കാർ വന്ന് മേടിക്കുന്ന കടയാണ് ഇത് ആ ആ അതെ അതെ അതെ പറഞ്ഞാൽ മതി ഞങ്ങളെടുത്ത് എടുത്ത് വച്ചിരിക്കാം ആ ഓഡര് അനുസരിച്ച് കൊടുക്കും ഓഡർ അനുസരിച്ച് കൊടുക്കുന്നതാണ് ആ ആ ആ ആഹാഹാ ആ ബീഫ് ആ അതെ അതെ അതെ ആഹ് അത് ഇവിടത്തെ പ്രത്യേകിച്ച് എല്ലാവര്ക്കും ഇഷ്ടമാണ് ആഹ്

ആഹ് ഓക്കെ ആഹ്